കേരളത്തിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ഇതാണ് നല്ലൊരു മുന്നേറ്റമാണുള്ളത് അപ്പം കേരളത്തിലിപ്പം ഏതിനാണെങ്കിലും ഇപ്പോൾ കാൻസർ പേഷ്യൻ്റിനാണെങ്കിലും പിന്നെ കാരുണ്യ പദ്ധതിയും അതുപോലെയുള്ള ഒരുപാട് പദ്ധതികളെല്ലാം ഉണ്ട് അത് അതായത് കിടപ്പുരോഗികൾക്കായി പാലിയേറ്റീവ് പരിചരണം അതുപോലെ പിന്നെ ആശാവർക്കർമാരെല്ലാം പിന്നെ വാർഡുകളിൽ പോയിട്ട് എല്ലാവരും ആരോഗ്യത്തെ പറ്റിയിട്ട് അവരോട് ബോധവൽക്കരണം നടത്തുന്നതെല്ലാം നല്ലൊരു ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മൊത്തം നാഷണലായിട്ട് തന്നെ ആശാവർക്കർമാർ ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ നല്ലൊരു ഇതാണ് പ്രൊസീജിയറാണ് രോഗികൾക്ക് കിട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലുകളാണെങ്കിലും സി എച്ച് സികളാണെങ്കിലും നല്ലൊരു ഫെസിലിറ്റിയാണ് ഉള്ളത് അപ്പം നമ്മൾക്ക് ഇപ്പം അടുത്തായിട്ട് മെഡിക്കൽ കോളേജുകളെല്ലാം വരുമെന്നുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ അവർക്ക് ആരോഗ്യ മേഖലയിൽ മറ്റുള്ളവർക്ക് അത്ര ഒരു ഇത് നമ്മൾക്ക് ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ വന്നെങ്കിലും അത് തിരിച്ചു പോകുമെന്നൊരു ഇത് വേറെ ഒരു പഞ്ചായത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് നമുക്ക് നല്ല വണ്ണം സങ്കടമായി എന്തു പറഞ്ഞെങ്കിൽ ഒരുപാട് കോളനികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നമ്മളെ എലി വരുന്നുണ്ട് പഞ്ചായത്തിൽ വരുന്നുള്ളത് അപ്പം അന്ന് നമ്മൾവിചാരിച്ചു ഇത് പോവുമ്പഴേക്ക് പാവപ്പെട്ട എസ് സി എസ് ടി കോളനികളിലെല്ലാം താമസിക്കുന്നവർക്ക് നല്ലൊരു ഉപകാരം ആവട്ടെ നമുക്ക് ഇവിടെ ഈ ഹോസ്പിറ്റൽ ഇതെല്ലാം താലൂക്ക് ഹോസ്പിറ്റലായെങ്കിൽ കുറേ കിടക്കകളും അങ്ങനെ എല്ലാമായിട്ട് നല്ലൊരു ഫെസിലിറ്റി വരുത്തി പക്ഷേ ഇത് പോയിട്ടാവുമ്പോൾ ഒരു സങ്കടമായി അത് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇതായിട്ടായിരിക്കാം പോയതെന്ന് വിചാരിക്കുന്നു അന്ന് എങ്കിലും ഇപ്പം നമ്മൾ അവിടെ തന്നെ ഇത് മെഡിക്കൽ കോളേജ് ഉള്ളതു കൊണ്ട് പിന്നെ അവിടെ ഇതില്ല ട്വൻ്റി ഫോർ അവർ ഇല്ല എന്നെങ്കിലും ഈ ഒരു ഉച്ച വരെയുള്ള ഓ പി ടൈമിൽ നല്ല നല്ല ഡോക്ടർമാരെ ഫെസിലിറ്റികളെല്ലാം കിട്ടുന്നുണ്ട് നല്ലൊരു ഉപകാരമാണ് മെഡിക്കൽ കോളേജെല്ലാം ഉള്ളത് കൊണ്ട് അതു പോലെ തന്നെ ഇപ്പം നമ്മൾ സി എച്ച് സികളിലെല്ലാമാണെങ്കിൽ ആർ ബി എസ് കെൻ്റെ നഴ്സുമാരും പിന്നെ അതു പോലെ തന്നെ മറ്റേത് ഫിസിയോതെറാപ്പിൻ്റെ ഡോക്ടർമാരും അവരെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഇത് ഡയാലിസിസിന് ഡയാലിസിസിന് ഉള്ള ഒരു സംവിധാനം ഇല്ലെങ്കിലും മറ്റ് ഡയാലിസിസിന് പേഷ്യൻ്റിന് വേണ്ടുന്ന ചെയ്യാൻ വേണ്ടുന്ന മരുന്നുകളെല്ലാം നമുക്കിപ്പം ആസ്പത്രിയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ സി എ പേഷ്യൻട് അതു പോലെ തന്നെ സ്ട്രോക്ക് വന്ന പേഷ്യൻ്റിനെല്ലാം പാലിയേറ്റീവിൻ്റെ സെക്കൻഡറി നഴ്സുമാർ പോയിട്ട് കാണാനുള്ളൊരു ഫെസിലിറ്റി കൂടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതു പോലെ തന്നെ ഈ പുറമേ ഫീൽഡിലെല്ലാം ഇപ്പോൾ ഇത് എൻ സി ഡി പോലുള്ള ക്യാമ്പുകളെല്ലാം വച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ എൻ സി ടിൻ്റെ ക്യാമ്പുകളെല്ലാം വച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പുകൾ വച്ചിട്ട് അവർ ബി പി ഷുഗർ എച്ച് ബി എല്ലാം ടെസ്റ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമുക്ക് ഫീൽഡിൽ ക്യാമ്പ് വച്ച് അങ്ങനെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ഫോണിലൂടെ ഡോക്ടറ ഓട് സംവദിക്കാനുള്ള എം എൽ എസ് പിക്കാറെ എം എൽ എസ് പി നേഴ്സുമാർ ഫെസിലിറ്റിയെല്ലാം നമ്മളെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലേക്ക് എല്ലാം തരുന്നുണ്ട് ഇപ്പം കുറേ എം എൽ എസ് പി നഴ്സുമാരെയെല്ലാം നിയമിച്ചിട്ടുണ്ട് അതു പോലെ തന്നെ ജെ പി എച്ച്മാരെ അങ്ങനെയെല്ലാം നിയമിച്ചത് കൊണ്ട് പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളെ ആരോഗ്യമേഖലയിലുള്ള ഒരു ഇത് നമുക്ക് സ്മൂത്തായിട്ട് പോവാൻ പറ്റുന്നുണ്ട് അതു പോലെ പക്ഷേ ഇപ്പോൾ ഇത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു വലിയ ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞതെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക് ഇപ്പം വലിയ വലിയ ഓപ്പറേഷനെല്ലാം വേണ്ടി വന്നെങ്കിൽ ഇത് എല്ലാം ഹോസ്പിറ്റലിലും കിട്ടില്ല എന്നെങ്കിലും നമുക്ക് പറ്റുന്ന പാവപ്പെട്ട രോഗിയെ അവർ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ആയുഷ്മാൻ ഭാരതെന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ഇൻഷുറൻസ് പരിരക്ഷയും കൂടി ഉണ്ട് അതു പോലെ തന്നെ അബാ എന്ന് പറയുന്നൊരു ഒരു അബാ ഐ ഡി എന്ന് പറയുന്നൊരു കാർഡിൻ്റെ ഒരു ഫെസിലിറ്റി കൂടിയും ഉണ്ട് അതായത് അബാ ഐഡിയിൽ ഉള്ളതാണെങ്കിൽ നമ്മളെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണത് അല്ലാതെ ആരോഗ്യ ഇൻഷുറല്ല അബാ ഐ ഡി ആരോഗ്യ ഇൻഷൂര് വേറെ അബാ ഐ ഡി വേറെ അത് ആ ഒരു ഫെസിലിറ്റിയെല്ലാം നമുക്ക് ആരോഗ്യമേഖലയിൽ കിട്ടുന്നുണ്ട് അതു പോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഗർഭിണികൾക്കെല്ലാം വേണ്ടിയിട്ട് ഐ എഫ്ൻ്റെ ഗുളികയും പിന്നെ ഇത് കാൽസ്യം ഗുളികയും ഇല്ലെങ്കിൽ ഇത് പാവപ്പെട്ട ഒരു ഗർഭിണികളെല്ലാം ഇത് ഇവിടെ മെഡിക്കൽ പോയിട്ട് തന്നെ മരുന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഇത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് ഇതും കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത് അയൺ ഗുളിക കാൽസ്യം ഗുളിക അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതു പോലെ തന്നെ ഇഞ്ചക്ഷന് അതായത് കുട്ടികളുടെ ഇമ്മ്യൂണയ്സേഷന് ഇമ്മ്യൂണയ്സേഷനും കൂടെ എല്ലാം ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട് അതാത് സ്ഥലങ്ങളിൽ ക്യാമ്പ് വച്ചിട്ട് അതാത് വാർഡുകളില് ക്യാമ്പ് വച്ചിട്ട് അത് കൊടുക്കേണ്ട ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇതാണുള്ളത് അതുകൊണ്ട് ആരോഗ്യമേഖലയിൽ നല്ലൊരു പുത്തൻ ഉണർവാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പിന്നെ അതുപോലെ തന്നെ കോവിഡെല്ലാം വന്ന സമയത്ത് വാക്സിനേഷൻ ആ കാര്യങ്ങളെല്ലാം നല്ല മുന്നിട്ട് നിന്ന ഒരു ജില്ലയാണ് കോവിഡിനെല്ലാം നല്ല ഇതിൽ നമുക്ക് ചേർക്കാനുമെല്ലാം പറ്റി ഗവൺമെൻ്റിൻ്റെ ഒരു നല്ലൊരു ഫുള്ള് സപ്പോർട്ട്ഇങ് പിന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അതു പോലെ തന്നെ എൻഡോസൾഫാൻ രോഗികൾക്കെല്ലാമുള്ള നല്ലൊരു സപ്പോർട്ട് എനിക്ക് കുറച്ച് ഡിലേ ആയിട്ട് വന്നതാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ഈ ആരോഗ്യമേഖലയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ രോഗികൾക്കുള്ള ഇതാണെങ്കിലും പിന്നെ ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് ടി ബി രോഗികൾക്കുള്ള മരുന്ന് ആ മരുന്നുകൾ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ എല്ലാം പറ്റുന്നുണ്ട് പാവപ്പെട്ട രോഗികൾക്കാണെങ്കിലും വാങ്ങിയിട്ട് കുടിക്കാനുള്ള അത്ര ശേഷി ഒന്നുമില്ലെങ്കിലും അപ്പോൾ അത്ര ഒരു ലക്ഷം രൂപ വരെയുള്ള മരുന്നുകളെല്ലാം നമുക്ക് നല്ല ഇതിൽ നമുക്ക് കിട്ടാൻ പറ്റുന്നുണ്ട് ആസ്പത്രിയിൽ കിടക്കകളാണെങ്കിലും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം അത്രയും നല്ലൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് വലിയ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് നേരിടേണ്ടി വരുന്നില്ല അതു പോലെ തന്നെ ഇപ്പോൾ ഗവർമെൻറ്റ് ആശുപത്രിയിലെല്ലാമാണെങ്കിൽ ഇപ്പം ഒരു പാവപ്പെട്ട രോഗി പോയെങ്കിൽ അവർക്കവിടെ ഇത് അഡ്മിറ്റ് ആവേണ്ടി വന്നെങ്കിൽ അഡ്മിറ്റ് ആയെങ്കിൽ അവർക്ക് നമുക്കിപ്പം പ്രൈവറ്റിലെല്ലാം കുറേ പൈസ എല്ലാം ആവുമെങ്കിലും ഗവൺമെൻറ്റിൽ പൈസ ഏതും ആവാതെ അവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് അവർ വരും വരെയുള്ള ഫുഡുകളെല്ലാം അവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് ബി പി എൽ പേഷ്യൻ്റ് എല്ലാം ആണെങ്കിൽ അവർക്ക് അവിടുന്ന് തന്നെ പിന്നെ ഫ്രീ ആയിട്ടുള്ള ഇത് സെയിം എ ടിക്കാർക്ക് ഫ്രീയായിട്ടുള്ള ചികിത്സ ബി പി എല്ലിനാണെങ്കിൽ ചെറിയൊരു പൈസ മാത്രം ലാബിലെല്ലാം കെട്ടിയാൽ മതി എന്നുള്ള അത് ആരോഗ്യ ഇൻഷുർ കാർഡ് ഉണ്ടെങ്കിൽ ആ പൈസ പോലും കെട്ടേണ്ട സ്ഥിതിയില്ല അത്രയും നല്ല ഒരു ഇതാണ് ഈ ഗവർമെൻറ് നമുക്ക് തരുന്നു എന്നുള്ളത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നല്ല ഇൻഷുറൻസ് പരിരക്ഷയും ഉള്ളതുകൊണ്ട് ഇത് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എമൗണ്ട് ആവാതെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു അനുഭവം ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്